എങ്ങനെയാണ് സ്മാര്ട്ട് ഫോണുകള് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതെന്നു ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ എല്ലാം നമ്മുടെ വിരല് തുമ്പില് തന്നെ എല്ലാം അവൈലബിളാണ് എന്നുവെച്ചാൽ നമുക്ക് എന്ത് ഏതു കാര്യത്തിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡിപ്പെണ്ട് ആയെന്നു വെച്ചാൽ നമ്മുടെ സ്മാര്ട്ട് സ്മാര്ട്ട് ഫോണിൽ തന്നെയാണ് അപ്പോൾ എന്തുവെച്ചാൽ എല്ലാ കാര്യത്തിനും നമുക്ക് പണ്ടൊക്കെയാണെങ്കില് ഒരാളെ വിളിക്കണമെങ്കില് നമുക്ക് ഒരാള്ക്കൊരു അറിയിപ്പ് കൊടുക്കണമെങ്കില് ഒരു മെസ്സേജ് കൊടുക്കണമെങ്കില് കുറേ കഷ്ടപ്പെടാനുണ്ടായി കത്തെഴുതണം കത്തെഴുതിയാല് പോസ്റ്റ് ഓഫീസിൽ അയക്കണം പോസ്റ്റ് ഓഫീസിന്നത് അവർ വെരിഫൈ ചെയ്ത് അത് അവിടുത്തേക്ക് എത്തുമ്പോഴേക്കൊക്കെ ഒരു മാസമൊക്കെ ആകും ഇപ്പോൾ വെച്ചാൽ നമുക്ക് അതില് നിന്നു ഇപ്പം പിന്നെ കുറച്ചും കൂടി മാറിയിട്ടായിട്ടാണ് ഫോൺ വെച്ചാൽ ടെലിഫോൺ വരുന്നത് ടെലിഫോണ് വന്ന് ടെലിഫോണെന്നു വെച്ചാൽ നമ്മളോടു ചോദിച്ചാൽ പിന്നീടത് ഒരു ഒരോരു സ്ഥലത്തേക്കുള്ളത് മാത്രമായിട്ടാണ് ടെലിഫോൺ മാറിയത് എന്നു വെച്ചാൽ വീട് റ്റൂ ചിലവർ വീട്ടിലേക്ക് വീട്ടില് നിന്നും വേറൊരു വീട്ടിലേക്ക് സ്ഥാപനത്തില് നിന്നും സ്ഥാപനത്തിലേക്ക് അങ്ങനെ മാത്രമെന്നു വെച്ചാൽ നമുക്കു മാത്രം ഇപ്പോൾ കോൾ ചെയ്യാന് പറ്റിയിരുന്നത് അപ്പോൾ ആ ടൈമിലുണ്ടായെന്നു വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടെന്നു വെച്ചാൽ ഓരോരോ സമയത്ത് ലൈനിൽ കുറേ ഇഷ്യൂ ഒക്കെ വരും അപ്പോൾ പിന്നെ കാണാന് പറ്റില്ല കാണാന് കഴിയുകയേയില്ല നമുക്കവരുടെ നമുക്ക് ആക്ച്വലി ഒരാളേ നേരിട്ട് കണ്ടിട്ടകുമ്പോൾ അവർ അവരോടു ക തോന്നുന്ന ഒരു ഫീലിംഗ് അത് നമുക്ക് നേരിട്ട് പറയാനുള്ളൊരു അവസരം നമുക്ക് ഫോണിലൂടെ ആ ടൈം ആ സമയത്ത് കിട്ടുന്നുണ്ടായിട്ടില്ല ഇപ്പം നേരെ മറിച്ച് കത്തെഴുതുന്നതിൽ എഴുത്തിലാണ് ആള്ക്കാർ വേറൊരാള്ക്കാരായിട്ട് മനസ്സിലാക്കുന്നുണ്ടായനു അതൊക്കെ ഒരു ഭയങ്കരമായൊരു ആ സമയത്തുണ്ടായൊരു ഒരു ബുദ്ധിമുട്ട് ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതൊക്കെ ഇപ്പോൾ നാടുവിട്ടു പോകുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗമായ നമ്മുടെ ഏട്ടനായാലും അനിയനായാലും ഒക്കെ അവർക്ക് കാണാനും സംസാരിക്കാനായാലും ഭയങ്കരമൊരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നേരെ മറിച്ച് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഇപ്പോൾ നോക്കണമെങ്കിൽ സ്മാര്ട്ട് ഫോൺ മുൻപ് വരുന്നതിനു മുൻപിലെ സാധാരണ നോക്കിയാ സെറ്റ് പോലത്തെയുള്ളൊരു കീപ്പാടുള്ളൊരു ഫോൺ ആണെന്നു വെച്ചാൽ വന്നത് എന്നു വെച്ചാൽ ആ ഫോൺ എന്നു വെച്ചാൽ നമുക്ക് വിളിക്കാം സംസാരിക്കാം പക്ഷെ നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റത്തില്ല കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതില് നിന്നു കുറച്ചുംകൂടി അഡ്വാന്സ് ആയിട്ടു വന്നത് ആധുനികമായിട്ട് വന്നതാണ് നമുക്ക് ഈ സ്മാര്ട്ട് ഫോണ് സ്മാര്ട്ട് ഫോണെന്നു ചോദിച്ചാാൽ വളരെ നല്ലൊരു കണ്ടുപിടുത്തവും വളരെ നല്ലൊരു എന്താച്ചാൽ ഇന്ന വീട്ടുമായിട്ടുള്ള ഒരു ഐ ഡിയും നമ്മുടെ സമയവും എല്ലാം ലാഭിക്കുന്നൊരു കണ്ടുപിടിത്തം തന്നെയാണ് ഈ സ്മാര്ട്ട് ഫോണ് അപ്പം ഈ സ്മാര്ട്ട് ഫോൺ ചോദിച്ചാൽ നമുക്ക് എല്ലാത്തിനേക്കുമായി നമുക്ക് പേര്സണല് ഡെയിലി ഇപ്പോൾ ഇപ്പം ഈ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ദിവസം എന്തിന് ഡെയിലി ബേസിസിലാണെങ്കില് നമുക്ക് എന്തായാലും സ്മാര്ട്ട് ഫോൺ വേണം സ്മാര്ട്ട് ഫോണില്ലാത്തൊരു ഇപ്പോൾ ഈ നമുക്ക് ചിന്തിക്കാന് പോലും പറ്റുന്നില്ല സ്മാര്ട്ട് ഫോണ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലെന്താകും ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം പോലും നമുക്ക് പിടിച്ചു നിൽക്കാന് പറ്റില്ല അങ്ങനത്തൊരു എന്നുവെച്ചാൽ അത്യാവശ്യം എന്നുവെച്ചാല് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഒരു നമുക്ക് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് നമുക്ക് ഈ സ്മാര്ട്ട് ഫോണ് എന്നു പറയുന്നത് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബന്ധങ്ങളെന്നു വെച്ചാൽ ബന്ധങ്ങൾ കീപ് ചെയ്യാന് വേണ്ടിയിട്ടു ഏറ്റവും അവരെ കണ്ട് സംസാരിക്കാനൊക്കെ വിരല്ത്തുമ്പിലിരുന്നു നമുക്കിത് ഇതൂ വെച്ചാൽ നമ്മുടെ കൈയ്യിന്മേൽ തന്നെയുണ്ട് കൈമെ കയ്യിലന്നുണ്ടതായതു കൊണ്ട് തന്നെ അവരെ കണ്ടു സംസാരിക്കാനും നമുക്ക് നമ്മളവിടുള്ളതു കൊണ്ട് അനുഭവങ്ങള് പങ്കുവെക്കാനായാലും ഇതിൽ സാധിക്കുന്നു എന്നു വെച്ചാൽ നിമിഷനേരം ഒരു നമുക്കിപ്പോൾ ഒരാളെ വിളിക്കണമെങ്കിൽ വിളിച്ച് അവരെ കാണണമെങ്കില് കണ്ട് അതിനെല്ലാം നമുക്ക് ഈ സ്മാര്ട്ട് ഫോണിൽ തന്നെ മതിയാകുന്നുണ്ട് അപ്പോൾ എന്നു വെച്ചാൽ ഇപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ എന്നു വെച്ചാൽ എല്ലാ നമുക്ക് ഡെയിലി ബേസിസില് ചെയ്യുന്ന എല്ലാ നീഡ്സിലും ഇപ്പോൾ നമുക്ക് സ്മാര്ട്ട് ഫോണ് അത്യാവശ്യം എന്നുവെച്ചാൽ ആധുനിക മോഡേണ് വേള്ഡിൽ നമുക്കെന്തായാലും ആവശ്യമായതാണ് ഈ സ്മാര്ട്ട് ഫോണ് എന്നുവെച്ചാൽ നമുക്ക് പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ വീട്ടിലെ പല ആവശ്യത്തിന്റെ കാര്യത്തിലായാലും എല്ലാറ്റിനും നമുക്ക് ഈ സ്മാര്ട്ട് ഫോണ് അത്യാവശ്യം ആണ് പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഗൂഗിള് പോലെയുള്ള കുറേ അപ്ലിക്കേഷന്സ് നമുക്ക് വളരെ ഉപകാരമാണ് യൂട്യൂബ് പോലെയുള്ള സമൂഹമാധ്യമങ്ങള് വാട്ട്സാപ്പ് പോലത്തുള്ള ഇന്സ്റ്റാഗ്രാം പോലത്തുള്ള സമൂഹമാധ്യമങ്ങള് നമ്മുടെ അനുഭവങ്ങളും മറ്റു സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കാന് പറ്റുന്നൊരു വേദിയാണ് നമുക്ക് ഈ സോഷ്യല് മീഡിയ എന്നു പറയുന്നത് സമൂഹമാധ്യമം അപ്പോൾ ഈ വാട്ട്സാപ്പിലൂടെ ആണെങ്കിൽ നമുക്കെല്ലാവരോടും അവര്ക്ക് മെസ്സേജ് അയക്കാം ചാറ്റ് ചെയ്യാം അതൊക്കെ ഉള്ള എന്താണ് പിക്കൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കാം വീഡിയോ അയച്ചു കൊടുക്കാം പാട്ടു കേൾക്കാം അങ്ങനെയൊക്കെ പറ്റുന്നൊരു ഇതാണ് പിന്നെ ഡെയിലി ചെയ്യുന്നതാണ് സ്റ്റാറ്റസ് ഒക്കെയിട്ട് നമ്മള് കാണുന്ന എല്ലാവരും കാണുന്നതാണ് അതുപോലെ തന്നെ ഇന്സ്റ്റാഗ്രാമും അതുപോലത്തെ ഒരു അപ്ലിക്കേഷനാണ് പിന്നെ പിന്നെ വരുന്നത് നമുക്ക് മെയിനായിട്ടു യൂട്യൂബ് വെച്ചാൽ ഒരു സാമൂഹിക മാധ്യമം എന്നു വെച്ചാൽ നമുക്കൊരു നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാന് പറ്റുന്ന നമുക്കൊരു വരുമാനം ഉണ്ടാക്കാന് പറ്റുന്നൊരു മാര്ഗ്ഗം തന്നെയാണ് ഈ യൂട്യൂബൊക്കെ പറയാന്ന് പലയാള്ക്കാർ അതിൽ സക്സസ് ആയവരുണ്ട് ഇപ്പോള് സക്സസ് ആകുന്നവരുണ്ട് സക്സസ് ആകാന് പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ കുറേ ഒരു യൂട്യൂബ് എന്നു വെച്ചാൽ വളരെ ഒരു നല്ലൊരു നല്ലൊരു വേദിയാണ് എന്നുവെച്ചാൽ സാമൂഹികമാധ്യമത്തിൽ വെച്ചു നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു വേദിയാണ് എന്നുവെച്ചാൽ പല പല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും പല പല ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ എഡിറ്റിംഗ് അങ്ങനത്തെ പോലെയുള്ള സിനിമ പാട്ട് ഡാന്സ് എല്ലാം നമുക്ക് അപ്പം അപ്പം തന്നെ മനസ്സിലാക്കാനും കണ്ടറിയാനും കേട്ടറിയാനും ഒക്കെ പറ്റുന്നൊരു സമൂഹമാധ്യമമാണ് ഈ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് എന്നുവെച്ചാൽ നമുക്കിപ്പോൾ അറിയാത്തതെന്തെങ്കിലും കാര്യം എന്നു വെച്ചാൽ നമുക്കിപ്പം ഇത് ചെയ്യാന് അറിയത്തില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് യൂട്യൂബിൽ സെര്ച്ച് ചെയ്തു കൊടുത്താൽ എത്രയോ ആയിരക്കണക്കിനു കണക്കിനുള്ള വീഡിയോ അതിൽ ടുട്ടോറിയല്സ് അങ്ങനത്തെ എങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ എല്ലാ ഭാഷകളിലും ലഭ്യമാണ് എന്നുവെച്ചാൽ എല്ലാ ഭാഷയിലും നമുക്ക് അവൈലബിളാണ് എന്നുവെച്ചാൽ എല്ലാം കിട്ടുന്നിപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നു അതുപോലെ തന്നെ എന്നു വെച്ചാൽ നമുക്കിപ്പോൾ ക്യാമറകളൊക്കെ ഉണ്ട് ഇപ്പോൾ സ്മാര്ട്ട് ഫോണിന്റെ ഒരു വലിയൊരു ഘടകമാണ് കാ ക്യാമറ എന്നു പറയുന്നത് അപ്പോൾ ഈ ക്യാമറയിൽ നമുക്ക് ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ നല്ല പാ നല്ല നല്ലൊരു രീതിയിലെടുക്കാം ഇപ്പോൾ എന്താ കാസര്ഗോഡ് ഭാഷയില് പറയുന്നതു പോലെ പാങ്ങിലെടുത്തിടാം ഒക്കെ പറയാം അപ്പോൾ സ്മാര്ട്ട് ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി പറയുകയാണെങ്കിലും എല്ലാ ക്വാളിറ്റിയും ഇപ്പം വളരെ നല്ലൊരു കണ്ടുപിടുത്തം തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അത്യാവശ്യത്തിൽ അത്യാവശ്യമായൊരു സാധനമാണ് ഈ സ്മാര്ട്ട് ഫോണെന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ അതെന്നു വെച്ചാൽ നമ്മളെ നമുക്ക് നമ്മുടേതായ ആയ എല്ലാ കാര്യങ്ങളും റെക്കോര്ഡ് ചെയ്യാന് പറ്റും പിന്നെ വീഡിയോ റെക്കോര്ഡ് ചെയ്യാം നമുക്ക് നമ്മുടെ ഡെയിലി ബേസിസില് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കില് അത് എഴുതിവെക്കാനും അത് നമുക്ക് നോട്ടിഫിക്കേഷന് അതിനൊക്കെ അലാറം വെക്കാനും രാവിലെ എഴുന്നേൽക്കാന് വേണ്ടി രാ കുറേ ആൾ എണീക്കാന് മടിയുള്ളവരുണ്ട് ഇപ്പോൾ ഇതുപോലെ ഒരു അലാറം വെച്ച് എണീക്കുന്നവരുണ്ട് പിന്നെ എന്നെപ്പോലത്തെ നാലഞ്ചു അലാറം വെക്കുന്നവരുണ്ട് എട്ടു മണിക്ക് എണീക്കണമെങ്കിൽ ഒരു ഏഴ് അൻപത് ഏഴ് അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് അങ്ങനെ കുറേ അലാറം വെച്ചിട്ട് എണീക്കുന്നവരൊക്കെയുണ്ട് പിന്നെ അങ്ങനെ കുറേ ഇതൊക്കെയുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ പെട്ടെന്നൊരു ഇന്ഫോര്മേഷന് പറയണമെങ്കിലിപ്പോൾ കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം അങ്ങനെ വീഡിയോ കോൾ ചെയ്യാം പറയാം കണ്ടു പറയാം കേട്ടു പറയാം നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ഇതിപ്പോളെന്തു സാധനം അറിയാത്തതെന്നു വെച്ചാൽ ഇപ്പം നമുക്ക് വഴിയിൽ നിന്നു കിട്ടുന്ന കടന്നു ഒരു ഒരു ഇത് പറയുക പെട്ടെന്നൊരു ചെടി കണ്ടു എന്ത് ചെടിയാണെന്നറിയില്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിള് ലെന്സിലിട്ടെടുത്താല് അതിന്റെ ഡിറ്റേയില്സ് നമുക്ക് പറഞ്ഞു തരും എന്ത് ചെടിയാണ് ഇതിന്റെ ഒറിജിന് എവിടെയാണ് അതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണ് ദോഷം എന്താണ് എല്ലാം നമുക്ക് ഈ ഗൂഗിള് വഴി കിട്ടുന്നുണ്ടിപ്പം അപ്പോൾ ഇപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ ഇപ്പോൾ സ്മാര്ട്ട് ഫോണെന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്യാവശ്യമായൊരു സാധനം തന്നെയാണ് പിന്നെ ചാറ്റ് ജി പി റ്റി പോലെയുള്ള എ ഐ ടൂള്സ് ഒക്കെ ഇപ്പം ഈ യൂസ് ചെയ്യാന് പറ്റുന്നതാണ് നമ്മൾ യൂസ് ചെയ്യാന് കഴിയുന്നതാണ് നമുക്ക് ഈ സ്മാര്ട്ട് ഫോണ് വെച്ചിട്ട് ചില ചാറ്റ് ജി പി റ്റി എന്നൊക്കെ പറഞ്ഞാല് സൂര്യന്റെ താഴെ എന്തുണ്ട് അതെല്ലാറ്റിനും ഉള്ള ഇന്ഫര്മേഷന് അതിപ്പോൾ നമുക്ക് നമ്മുടെ പഠനത്തിലായാലും നമുക്ക് റിസേര്ച്ച് ചെയ്യാനും നമ്മുടെ ബിസിനസ്സിന്റെ പുരോഗതിക്കായാലും എന്തിലും നമുക്ക് യൂസ് ചെയ്യാന് പറ്റുന്നതാണ് ഈയൊരു സ്മാര്ട്ട് ഫോണ് പിന്നെ വെച്ചാൽ നമുക്ക് സ്മാര്ട്ട് ഫോൺ വഴി കുറേ ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാന് പറ്റും ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സ് വേറൊരു നാ നാട്ടിലേക്ക് വികസനം ചെയ്യാനും പിന്നെന്താ പറയുക വേറൊരു കണ്ട്രി വേണമെങ്കില് കണ്ട്രി ബേസിസില് നമുക്ക് ബിസിനസ് ചെയ്യാന് ഉപയോഗിക്കുന്ന ഒരു വളരെയൊരു മികച്ച ഒരിതെന്നുവെച്ചാൽ നല്ലൊരു അടിപൊളി ക്രിയേറ്റീവാണ് നമുക്ക് ഈ സ്മാര്ട്ട് ഫോണ് കൊണ്ട് കിട്ടിയൊരു ഒരിത് ഇപ്പോൾ ഈയൊരു തലത്തിൽ നോക്കിയാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നതല്ലാണ്ട് ഈ സ്മാര്ട്ട് ഫോണുകൾ കൊണ്ട് നല്ല ഉപയോഗം തന്നെയാണ് പിന്നെയെന്താന്നു വെച്ചാൽ പറയാനുള്ളതെന്നാൽ വെച്ചാൽ സ്മാര്ട്ട് ഫോണുകൾ പലേ ദുരുപയോഗങ്ങളുണ്ട് എന്നുവെച്ചാൽ പോണ് അഡിക്ഷന് എന്നു വെച്ചാൽ വളരെ കോമണ് ആണിപ്പോൾ യങ്സ്റ്റേര്സിന്റെ ഇടയിൽ ചില ചെറു ചെറുപ്പക്കാരുടെ ഇടയിൽ ഭയങ്കര ഒരു കോമണായിട്ടുള്ള ഒരിതാണ് പോണ് അഡിക്ഷന് അതുമൂലം തന്നെ അവര്ക്ക് അവരുടെ ജീവിതത്തില് പലേ മാറ്റങ്ങള് സംശ് സംഭവിക്കുന്നുണ്ട് എന്താണെന്നു വെച്ചാൽ അവര്ക്ക് തീരെ ഇതിപ്പോൾ ജീവിതത്തോടു ഒരു താത്പര്യവുമില്ല പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കേണ്ട ഒന്നും വേണ്ടാ പിന്നെ അഡിക്റ്റ് ആയിപ്പോയാൽ പിന്നെ പോണിൻ്റെ ഗ്രൂപ്പിന് അഡിക്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണെന്ന് ചിലവർ അതില് നിന്നു പിന്തിരിപ്പിക്കാന് വളരേ കഷ്ടപ്പെടേണ്ടി വരും എന്നുവെച്ചാൽ ഫോൺ അഡിക്ഷന് എന്നു പറയുന്നതങ്ങനെയാണ് നമുക്ക് ഈ അവരതിന് യൂസ് ആക്കിയില്ലെങ്കില് ആവശ്യത്തിന് പുറമേ യൂസ് ആക്കുമ്പോളാ നമ്മളീ അഡിക്ഷൻ ആയി പോകുന്നത് ഇപ്പോൾ ഈ ഒരു അഡിക്ഷന് ഭയങ്കരമായാച്ചാൽ എങ്ങനെയാണെന്നു വെച്ചാൽ ഈ പെൺ നൂഡിറ്റി കോമൺ ആണ് നമ്മുടെ ഈ യങ്ങ്സ്റ്റര്സ്സിന്റെ ഇടയിൽ അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അടിത്തറ ഒരു നട്ടെല്ലെന്നു പറയുന്നത് ഈ യങ്ങ്സ്റ്റര്സാണ് ആ യങ്ങ്സ്റ്റര്സ് ഒടിഞ്ഞു പോയാല് തന്നെ നമ്മുടെ രാജ്യം തന്നെ എന്താന്നു വെച്ചാൽ എന്ത് പറയുക ഇല്ലാതായി പോകും ആ ഒരു രാജ്യത്തിന്റെ ഭാവിയില്ലാതായി പോകും പോകുകയായി ഞാനിത് വായിച്ച് വിട്ടതാണ് കേട്ട് ഇന്സ്റ്റാഗ്രാമില് കേട്ടതാണ് വെച്ചാൽ കേട്ടതാണ് പക്ഷെ അതിൽ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു രാജ്യം തകര്ക്കണമെങ്കില് ഈ അവരുടെ ആ രാജ്യത്തിന്റെ യങ്ങ്സ്റ്റര്സിന്റെ ഇടയിൽ നൂഡിറ്റി കോമണ് ചെയ്താൽ മതി അപ്പോൾ അവർ അതിലേക്കു അഡിക്റ്റ് ആയി പോയാല് പിന്നെ അവര്ക്ക് എണീക്കാന് ഭയങ്കര പ്രയാസമാണ് അഡിക്റ്റ് ആ അഡിക്ഷനില് നിന്ന് പുറമേ പുറത്തു കടക്കാന് ഭയങ്കരമായ ഭയങ്കരമായ പ്രയാസമാണ് എന്നുവെച്ചാൽ അതിപ്പോൾ മനസ്സിലാക്കി അത് വരുമ്പോൾ കുറേ ടൈം പിടിക്കും അപ്പോൾ ഇതിന്റെ ഒരു ദുരുപയോഗം എന്നു വെച്ചാൽ ഇതൊക്കെയാണ് എന്നു വെച്ചാൽ പിന്നെ കുറേ സമൂഹമാധ്യമങ്ങളില് കുറേ തട്ടിപ്പൊക്കെ നടത്താറുണ്ട് അതൊക്കെ ശരിയാണ് അതിൽ കുറേ ഭീഷണികള് കുറേശ്ശേ ആത്മഹത്യ അങ്ങനത്തെയെല്ലാം പ്രവണതയിലേക്കൊക്കെ നയിച്ചിനി കുറേ അതും കുറേ നമ്മള് കോമൺ ആണിപ്പോൾ ഭയങ്കര കോമൺ ആണിപ്പോൾ ഈ സോഷ്യല് മീഡിയ ക്രൈംസ് സാമൂഹിക മാധ്യമങ്ങളില് നടക്കുന്ന അനീതി അതെല്ലാം ഭയങ്കരമായ കോമൺ ആണ് അപ്പോൾ എനിക്കെന്താ പറയുക എന്നു വെച്ചാൽ വെച്ചാൽ സ ഈ സ്മാര്ട്ട് ഫോണ് സ്മാര്ട്ട് ഫോണ് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം ബൈ നല്ല മാറ്റത്തിനു വലിയൊരു ഉറവിടം തന്നെയാണ് ഈ സ്മാര്ട്ട് ഫോണ് അതുപോലെ തന്നെ പലേ അതുപോലെ തന്നെ മോശമായ ഘടകങ്ങളും ഉണ്ട് ഇപ്പോൾ എന്തും നല്ലത് തന്നെയായിട്ട് മാറണം എന്നില്ലല്ലോ ഒരു ഇരുമ്പെന്നു വെച്ചാൽ അതിന്റെ തുരുമ്പു തന്നെയാണ് അതിനെ നശിപ്പിക്കുന്നതെന്നു പറയുക കണക്കേ ഇപ്പോൾ സ്മാര്ട്ട് ഫോണ് നമ്മൾ യൂസ് ആക്കെന്നു വെച്ചാൽ നമ്മൾ നമ്മളെ പ്രവര്ത്തിക്കനുസരിച്ചിരിക്കും അതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകര്ക്കുന്നത് നമുക്ക് നേരായ രീതിയിൽ യൂസ് ചെയ്യാം തെറ്റായ രീതിയിലും യൂസ് ചെയ്യാം മീന്സ് നമ്മുടെ ജീവിതത്തിലെ ഡെവലപ്പ്മെന്റ്നും ഡിസ്ട്രക്ഷനും എന്നുവെച്ചാൽ കാരണമാകും ഈ സ്മാര്ട്ട് ഫോണെന്നു പറഞ്ഞത് എന്നുവെച്ചാൽ സ്മാര്ട്ട് ഫോണെന്നു നമുക്ക് പറയാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സ്മാര്ട്ട് ഫോൺ നമ്മളുടെ ജീവിതത്തിൽ പെടുത്തിയ മാറ്റങ്ങളും മെച്ചപ്പെടുത്തുന്നതായാലും പറഞ്ഞാൽ പറ പറയാനുള്ളത് അപ്പോൾ ശരിയെന്നാൽ